ആ അതെ എൻ്റെ ചേച്ചീടെ കൊച്ചിൻ്റെ ചോറൂണാണ് അപ്പോൾ അത് ഗുരുവായൂർ വെച്ച് നടത്താനാണ് ഞങ്ങളാഗ്രഹിക്കുന്നത് അപ്പോൾ ഗുരുവായൂർ ടെമ്പിൾളേക്ക് പോവാനായിട്ടായിരുന്നു ട്രാവലർ ബുക്ക് ചെയ്തേ

ഒരുപാട് പേരൊന്നുമില്ല ഒരു പത്തൊൻപത് പേരൊക്കെ ഉണ്ടാവുള്ളൂ ട്രാവലറായി ട്രാവലറ് മതിയാവും

ആ അതെ ആ ആ അതെ അതെ ആ ബഡ്ജറ്റ് വലിയ സീൻല്ലാ കൊച്ചിൻ്റെ ചോറൂണാണ് അതിന് അതിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്സ് കൊടുക്കണത് അപ്പോൾ അതുകൊണ്ട് പൈസേടെ കാര്യത്തിൽ വലിയ ഇതില്ല ആ ആ ആ എ സി ആയിക്കോട്ടെ ആ ആ അല്ല അപ്പോൾ എ സീടെ എക്സ്ട്രാ എത്രയാണ് നിങ്ങൾ വാങ്ങണത് നോർമൽ അല്ലാതെ എ സിക്ക് ആ ആ ഓ എ സി ഉള്ളോണ്ടാ ഇവിടെ ത്രീ കെ എക്സ്ട്രാ

ഓക്കേ ഓക്കേ കുട്ടികളും കസിൻസൊക്കെയുണ്ടാവും അപ്പോൾ അവർക്ക് പാട്ട് ഡാൻസ് അതിൻ്റെക്കെ ഫെസിലിറ്റീസൊക്കെ അവൈലബിളല്ലേ ആ ആ ഒരു എൻജോയ്മെൻറ്റാണ് ഞങ്ങളുദ്ദേശിക്കുന്നത്

ഞങ്ങൾക്ക് നെക്സ്റ്റ് സൺഡേണ് ആ വേണ്ടത് ആ ആ ഓക്കേ അപ്പോൾ ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എപ്പളാ പോവേണ്ടത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആ അതെ അപ്പോൾ നിങ്ങളുടെ വണ്ടി എപ്പോൾ വരും ആ ഒരു ടൈം ആ ആ

ആ ആ

ഓക്കേ ഓക്കേ ആ ബുക്ക് ചെയ്യാം ആ ആ ഓക്കേ അത് പേയ്മെൻറ്റ് എങ്ങനെയാണ് നമ്മളത് വാ ട്രിപ്പ് വന്ന ശേഷമാണോ അല്ലെങ്കിൽ നമ്മൾ അതിന് മുന്നേ പേയ്മെന്റ് ചെയ്യണോ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓക്കേ ഓക്കേ ഓക്കേ താങ്ക് യൂ